ഹലോ

ക്ലാസിക്കൽ ഹിപ് ഹോപ്പ് സിനിമാറ്റിക് മൂന്ന് തരം കണ്ടപ്ററിയും കൂടെ ചെയ്യിക്കുന്നുണ്ട് കണ്ടപ്ററി ചെയ്യിക്കാനായിട്ട് ആ കണ്ടംപററി ചെയ്യാനായിട്ടാണ് അല്ലേ കണ്ടംപററി ചെയ്യാനായിട്ടല്ലേ എന്ന് കണ്ടംപററി ചെയ്യാനായിട്ടാണല്ലേ എന്ന്

ആ ശനി ശനി ഞായറുമാണ് ഞങ്ങളുടെ ക്ലാസ് ശനിയും ഞായറുമാണ് ക്ലാസ് മ് ശനി ഞായറും ഇല്ല ഇട ദിവസങ്ങളിൽ ഇല്ല ബാക്കി ഞങ്ങൾക്ക് കൂടുതലും സ്റ്റുഡൻസിന് വെക്കേഷൻ ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കരാണ് അപ്പം സ്കൂളിൽ പോവുന്ന കോളേജിൽ പോവുന്ന കുട്ടികളാണ് സ്റ്റുഡൻസായിട്ട് കൂടുതൽ അഡ്മിഷൻ ഫീ ആയിരത്തി അഞ്ഞൂറ് ആയിരം അഡ്മിഷൻ ഫീ ആയിരം അഡ്മിഷൻ ഫീസും അഞ്ഞൂറ് ഒരു മാസം ഒരു മാസത്തെ ഫീസും രണ്ടര തൊട്ട് നാലു മണി ആ ഞായറാഴ്ച രണ്ടര തൊട്ട് നാലുമണി വരെ

എല്ലാ ശനി ഞായറും മാസം മാസം ഫീസ് അഞ്ഞൂറ് രൂപ കേട്ടോ എല്ലാ മാസം ഫീസ് അഞ്ഞൂറ് രൂപ പിന്നെ കണ്ടംപററി ആവുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം യോഗ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ല യോഗ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ചെയ്യുന്നതാണെങ്കിൽ യോഗ ചെയ്യുന്നതൊക്കെയാണെങ്കിൽ കണ്ടംപററി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഡാൻസ് ആയിക്കോട്ടെ